ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിൻ്റെ ക്ലാസ്സ് കോഡിനേറ്റർ ആയിരുന്നു ആ ഒരു കാലയളവിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സുപ്രധാന തീരുമാനങ്ങളും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ക്ളാസ്സിലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള തല്ലുൾ അതുപോലെ തന്നെ സാറും കുട്ടികളും തമ്മിലുള്ള വഴക്ക് എന്തെങ്കിലും പ്രോബ്ലെംസ്സുണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടനിലക്കാരി ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട് ഞാൻ ഈ ഇടനിലക്കാരിയായിട്ട് നിൽക്കുമ്പോൾ ചിലർ ചിലർക്കൊക്കെ സ്വരച്ചേർച്ചയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തമാണ് അത് എനിക്കങ്ങനെ ചെയ്താലേ പറ്റുകയുള്ളൂ ഒരുപാട് കാര്യങ്ങളിൽ ഞാനും കോളേജിലെ സ്റ്റാഫ്സ്സും തമ്മിൽ അടിയായിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു എല്ലാം എൻ്റെ ക്ളാസ്സിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഓരോ പ്രോബ്ലെംസ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് ഞാൻ മിക്കവാറും അവിടുത്തെ സ്റ്റാഫ്സ്സുമായിട്ട് അടി ഉണ്ടാക്കാറുള്ളത് എൻ്റെ കോളേജിൽ വീക്ലി ആയിരുന്നു ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഉള്ളത് അതും ഒരു കോഡിനേറ്ററിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അതുകൊണ്ട് തന്നെ അതും എൻ്റെ തലയിലായിരുന്നു ശനിയാഴ്ച ആകുമ്പോൾ ഞാൻ കോളേജിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസിനെ വിളിച്ച് അവർ എപ്പോൾ ഫ്രീ ആകും ഏത് സമയത്ത് ഫ്രീ ആകും ഏത് ദിവസം ഫ്രീ ആകും എന്ന് നോക്കിയിട്ടാണ് ടൈൻ ടേബിൾ ആ ഒരു വീക്കിലെ ടൈൻ ടേബിൾ ഞാൻ ഇടാറുള്ളത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു സുപ്രധാന തീരുമാനം എടുക്കേണ്ടി വന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കോഴ്സിൽ സ്പെഷ്യലൈസേഷൻ സബ്ജെക്റ്റ് നമ്മൾക്ക് തന്നെ തെരഞ്ഞെടുക്കണം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു റൂളനുസരിച്ച് ഈ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റിൽ മിനിമം പത്ത് പേരെങ്കിലും ആ ഒരു സബ്ജെക്റ്റ് പഠിക്കാനായിട്ട് ഉണ്ടാരിക്കണം ഇല്ലെങ്കിൽ പത്ത് പേരില്ലങ്കിൽ അവർ ആ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഒരു ഫാക്കൽറ്റിയെ പ്രൊവൈഡ് ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ക്ളാസ്സിൽ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജെക്റ്റിൽ ഏഴ് പേര് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മടെ യൂണിവേഴ്സിറ്റി ആ ഒരു സബ്ജെക്റ്റ് പഠിപ്പിക്കാൻ ഫാക്കൽറ്റീസിനെ അനുവദിച്ചിട്ടുണ്ടായിരിന്നില്ല അത് അപ്പോൾ അത് കുറച്ച് കട്ടി ഉള്ള ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഏഴ് പേരും ഏഴ് ഏഴ് പേരും എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു അവർക്ക് നല്ല കട്ടിയാണ് ആ സബ്ജെക്റ്റ് പഠിക്കാൻ അവർക്ക് ഫാക്കൽറ്റീസിനെ വേണം എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിർഭാഗ്യവശാൽ ആ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജെക്റ്റ് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി നമ്മുടെ കോളേജിലില്ല അത് ആ ഒരു അത് പഠിപ്പിക്കണമെങ്കിൽ തന്നെ പുറത്തു നിന്നൊരു ഗെസ്റ്റ് ഫാക്കൽട്ടിയെ പൈസ കൊടുത്തു കൊണ്ടുവരേണ്ടി വരും ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ആദ്യം ചെയ്തത് ഈ ഒര് സബ്ജെക്റ്റ് പഠിപ്പിക്കാൻ പറ്റിയ ഫാക്കൽറ്റി വേറെ ഏതൊക്കെ കോളേജിൽ ഉണ്ട് എന്ന് തപ്പി പിടിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പേരെ കണ്ട് പിടിച്ചു എന്നിട്ട് അവർ നമ്മൾക്ക് വന്ന് പഠിപ്പിക്കാൻ വില്ലിങ്ങാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾ എൻ്റെ കോഴ്സ് കോഡിനേറ്ററായ സാറിനെ പോയി കണ്ട് കാര്യം പറഞ്ഞു കുട്ടികളുടെ ഈ നിസ്സഹായാവസ്തയെ പറ്റി പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു സാറിന് ഫാക്കൽറ്റീസിനെ വയ്ക്കുന്നതിൽ കുഴപ്പാമൊന്നുമില്ല ഒരു ഗെസ്റ്റ് ഫാക്കൽറ്റിയെ വയ്ക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഡയറക്ടർ സാറ് കൺവീൻസ്സാവണം എന്നാൽ മാത്രമേ സാറിന് അത് ഓക്കെ പറയാൻ പറ്റുകയുള്ളു എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ സാറ് ഡയറക്റ്റരു സാറിനെ നേരിട്ടു പോയി കണ്ടു കണ്ടപ്പോഴേക്കും സാറ് പറഞ്ഞത് വയ്ക്കാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ഏഴ് കുട്ടികളും ആ ഒരു സബ്ജക്റ്റിൽ ആബ്സെൻ്റ് ആവാൻ പാടില്ല അവധി എടുക്കാൻ പാടില്ല എല്ലാവരും ആ ഒരു സബ്ജക്റ്റിന് ഫുൾ അറ്റൻഡൻസാരിക്കണം എന്ന് അപ്പം ഞാൻ അതൊരു ഹൺഡ്രഡ് പേഴ്സൻടേജ് ഉറപ്പും സാറിന് കൊടുത്തു സോ ഒരു ഗെസ്റ്റ് ഫാക്കൽറ്റിയെ കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള പേമെൻടും കോളേജ് തന്നെയാണ് കൊടുക്കാറുള്ളത് പക്ഷെ നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻ്റിൽ അതിന് വിയോജിപ്പുണ്ട് കാരണം ഏഴ് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു തുക കൊടുത്ത് ഒരു ഗെസ്റ്റ് ഫാക്കൽറ്റിയെ കൊണ്ടു വരിക എന്ന് മാനേജ്മെൻ്റിന് വിയോജിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടു തന്നെ ഡയറക്ടർ സാറ് സ്വന്തം പൈസക്കാണ് ഫാക്കൽറ്റിയെ വരുത്തി തന്നത് അങ്ങനെ കുട്ടികൾക്ക് ഫാക്കൽറ്റീസിനെ കിട്ടി അവർ ആ ഫാക്കൽറ്റി പോകുന്നത് വരെ ഹൺഡ്രഡ് പേഴ്സൻടേജ് അറ്റൻഡൻസ്സായിരുന്നു ആരും ഒരാബ്സൻടും എടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദേശം സ്വീകരിക്കാറുള്ളത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്